ആ ലിറിക്സ്ൻ്റെ മീനിങ് കൂടെ അങ്ങനെ എടുത്ത് പഠിച്ചുകൊണ്ട് ഹിന്ദി വേഡ്സ് കൂടുതൽ പഠിക്കാൻ പറ്റി അതുകൊണ്ട് തന്നെ എനിക്ക് ഹിന്ദി അത്യാവശ്യം എളുപ്പമായിരുന്നു പ്ലസ് വൺ പ്ലസ് ടു ടൈമിൽ ആണെങ്കിലും എനിക്ക് ഹിന്ദി എളുപ്പമായിരുന്നു ഇപ്പോൾ അറിയാത്തവർക്ക് പറഞ്ഞ് കൊടുക്കാൻ ആണെങ്കിലും പുതിയ പുതിയ വാക്ക് ഇപ്പോൾ കേട്ടാലും കുറച്ചൊക്കെ മനസ്സിലാവാൻ ആണെങ്കിലും എനിക്ക് എളുപ്പമായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ മാർക് കിട്ടി കൊണ്ടിരുന്നത് ഹിന്ധിക്കാണ് അത് ഇതുകൊണ്ടാണ്